ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ അവസരങ്ങളും പ്രാധാന്യങ്ങളും നൽകുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം വേണ്ടാത്തര വേണ്ട രീതിയിൽ ഇപ്പം സ്കൂളുകളിലായാലും ഓരോ കുട്ടിയും വളരുന്ന സമയത്ത് അതിൻറ്റേതായിട്ടുള്ള കലകളോ അല്ലെ കലകളിലോ മറ്റു എക്സ്ട്രാ ആക്ടിവിറ്റീസിലോ കുട്ടികൾക്ക് കഴിവുണ്ടെന്ന് കണ്ടാൽ അതിനു വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അവരെ ജില്ലാ സബ്ജില്ലാ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കുട്ടികളെ അതിൻറ്റേതായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ടു തന്നെ ഒരു വളർന്നു വരുന്ന ഒരു കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യങ്ങളും അവസരം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ചെറിയ ഒരു അറിവു വെച്ച് എനിക്ക് ഇത്രയും പ്രായത്തിനിടയിൽ ഞാൻ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരാവശ്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ വേണ്ട പ്രധാനം പ്രാധാന്യം അവസരങ്ങളും കിട്ടാതിരിക്കുകയോ ചെയ്തിട്ടില്ല മാത്രമല്ല എല്ലാ കുട്ടികളും അവരുടെ കലകൾക്കും അല്ലെങ്കിൽ അവരുടെ കഴിവുകൾക്കും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്ത് അതിൽ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് കൂടുതൽ പ്രയത്നിച്ച് അവർക്ക് എത്തിപ്പെടേണ്ട സ്ഥാനങ്ങളിൽ എത്തുകയും അതിനുള്ള എല്ലാ വിധ സൗകര്യങ്ങളും അതി അതിൽ അതിൽപ്പെട്ടവർ നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളെ ഇതുവരെ എൻ്റെ ശ്രദ്ധ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇന്ത്യയിലെ കലാകാരന്മാർക്ക് മതിയായ പ്രാധാന്യങ്ങളും അവസരങ്ങളും നൽകുന്നുണ്ട് എന്ന് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് അത്തരത്തിലുള്ള യാതൊരുവിധ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പെട്ടിട്ടില്ല സബ്ജില്ലാ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഒരു മത്സര കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു അവസര നിഷേധാത്മകമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇനി ഇനി ഏതെങ്കിലും ഒരവസരത്തിൽ അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽത്തന്നെ അത് നൂറിൽ ഒരു പത്ത് ശതമാനത്തിൽ ഏറെ പേർക്ക് മാത്രമായിരിക്കും അങ്ങനെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സംഭവം നേടാൻ ഉണ്ടായിട്ടുണ്ടാവുക